കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നൃത്തം മാറിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് കാരണം കഴിഞ്ഞൊരു കാലഘട്ടമേ അല്ല ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ കാലഘട്ടം പണ്ട് കാലത്ത് എന്ന് പറയാനായിട്ട് ക്ലാസ്സിക്കൽ ഡാൻസ് ആയ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഇവ മാത്രമേ ഉണ്ടായിരുന്നുളളൂ പിന്നെ അതൊരു പുതിയ തലമുറയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ അതെല്ലാം വീണ്ടും ഒരുപാട് നൃത്തങ്ങളായിട് വിഭജിച്ചിരിക്കുവാണ് സിനിമാറ്റിക് ഈസ്റ്റേൺ വെസ്റ്റേൺ ഇങ്ങനെ ഒരുപാട് നൃത്ത നൃത്തങ്ങളെല്ലാം വന്നു ഈ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വയം സ്റ്റെപ്പുകളെലാം ഉണ്ടാക്കി നൃത്തം ചെയ്യുന്നൊരു ഡാൻസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത് പിന്നെ ഈ ക്ലാസ്സിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യായാമം ചെയ്യുന്നത് പോലെയും കൂടിയാണ് നമ്മുടെ ക്ലാസ്സിക്കൽ ഡാൻസിനെ കൊണ്ട് നമുക്കൊരു ഉപകാരമായിട്ടുള്ളത് വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ പുതിയ തലമുറ സ്വയം സ്വന്തമായിട്ടോരോ സ്റ്റെപ്പുകളും എല്ലാം ഉണ്ടാക്കി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഡാൻസുകളുണ്ട് എല്ലാ ഡാൻസിനും അതിൻറേതായ ആ ഒരു ഭംഗിയും മനോഹാര്യതയെല്ലാം ഉണ്ട്